ചിത്രകലയിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാരുടെ സാധാരണ സംഭവിക്കുന്ന വീഴ്ചകളെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാലവർ പഠിക്കാതെ മനസ്സിൻ്റെ ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് നമ്മൾ പോയിട്ട് ഒരു വർക്ക് ചെയ്തുകഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് ഫെയിലായിപ്പോകും അപ്പം എപ്പോഴും നമുക്കൊരു പരിശീലനം ആവശ്യമാണ് എന്ത് ജോലി ചെയ്താലും അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയ്ലായിട്ടുള്ളൊരു പഠനം ആവശ്യമാണ് അതേപോലെ തന്നെയാണ് ചിത്രകലനം ഇപ്പം നമ്മൾ വരക്കുമ്മതെന്ന് ഉദ്ദേശിച്ച് അത് നമ്മളൊരു പ്രൊഫഷനാക്കി ഒരു ജോലി അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകുമ്പം നമ്മൾ ആ ഒരു നമ്മൾ ചെയ്യുന്ന ആ ജോലിയെക്കുറിച്ച് നമുക്ക് കൂട്തലായിട്ടുള്ള അറിവ് വേണം അല്ലെന്നുണ്ടെങ്കിലത് നമുക്ക് ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാം അപ്പം അതിന് നല്ലൊരു പരിശീലനം ആവശ്യമാണ് അപ്പം നമ്മളതിനാണൊ ഇപ്പം ചിത്രകല തന്നെ പല രീതിയിലുണ്ട് ഫേബ്രിക് പെയിൻടിങ്ങുണ്ട് വാൾ പെയിൻടിങ്ങുണ്ട് അതേപോലെ വാൾ ഡിസൈനിങ്ങ് അതെപോലന്നെ മ്യുറൽ പെയിൻടിങ്ങുണ്ട് അങ്ങനെ പലവിധത്തിലുള്ള ചിത്ര കലയിൽ തന്നെ പല വിധത്തിലുള്ളതൊണ്ട് അപ്പം നമ്മളേതിനാണൊ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു എല്ലാം പഠിച്ചില്ലെങ്കിൽ തന്നെ ആ ഒരു ഇത് മാത്രം എങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം ഇപ്പോൾ മ്യൂറലാർട്ടാണെങ്കിലതും നമ്മൾ കോൺസെൻട്രേറ്റത് അത് കൂട്തലായിട്ട് പരിശീലനം നേടിയിരിക്കണം നമുക്കത് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇപ്പം നമ്മൾ പഠിച്ചൂന്നുള്ളതിൽ കൂടുതൽ കവിഞ്ഞ് നമ്മൾ അത് നമ്മൾ കുറെ ചെയ്ത് നമ്മൾ കൈ ഒരു കൈ വഴങ്ങണം അപ്പോൾ നമുക്ക് ചെയ്തുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പം നല്ലൊരു എക്സ്പീരിയൻസുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കാര്യത്തിലും ശോഭിക്കാൻ പറ്റത്തൊള്ളു